ഇപ്പം വ്യക്തിഗത തലത്തിൽ എന്നൊക്കെ വെച്ചിട്ടുണ്ടങ്കിൽ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളിലും ലക്ഷ്യങ്ങളിലും ഒക്കെ വേണ്ടത്ര ശ്രദ്ധ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് മെയിനായിട്ടും അതായത് നമ്മളെ വിദ്യാഭ്യാസസമ്പ്രദായമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം നമ്മുടെ കുട്ടികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സ്കൂളിൽ പോകാൻ ഒക്കെ തുടങ്ങുമ്പം കുടുതലും സ്കൂളിലാണ് അവരുടെ ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാറ് കാരണം എന്ന് വെച്ചിട്ടുണ്ടേൽ രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ നമ്മൾ അവരെ വണ്ടിയിൽ പറഞ്ഞുവിടും അവർ ഒരു നാല് മണി അഞ്ച് മണിയാകുമ്പോൾ വരും കുറച്ച് നേരം കളിക്കും പിന്നെ അവർ എന്തെങ്കിലും കുറച്ച് നോട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതും അല്ലേൽ നമ്മൾ കുറച്ച് പറഞ്ഞ് കൊടുക്കും പിന്നെ അവർ കിടന്ന് ഉറങ്ങും പിന്നെയും രാവിലെ ആകുമ്പം ഇത് തന്നെയാണ് നടക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ മെയിനായിട്ട് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കണം അതായത് ടീച്ചർമാരാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടീച്ചർമാർക്ക് ആയിരിക്കും അവരുടെ കൂടുതൽ കഴിവുകളും കാര്യങ്ങളും ഒക്കെ മനസിലാവാൻ പറ്റുക അപ്പം എന്ന് വെച്ചിട്ടുണ്ടേൽ അവർ അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം പിന്നെ അതുപോലെ എന്ന് വെച്ചിട്ടുണ്ടങ്കിൽ അവരെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ എന്ന് വെച്ചിട്ടുണ്ടേൽ എല്ലാ കുട്ടികളേയും ഒരേ പോലെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പഠിപ്പിക്കണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രചോദനാത്മകമായിട്ടുള്ള സംഭാഷണങ്ങൾ സംഘടിപ്പിക്കണം പിന്നെ നിരന്തരമായിട്ടുള്ള അതായത് വിദ്യാർത്ഥികളെ കൗൺസില് ചെയ്യണം അങ്ങനെ ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് അവരുടെ മനസ്സ് മനസിലാക്കാൻ പറ്റും ടീച്ചർമാർക്കും വിദ്യാർത്ഥികൾക്കും നല്ലൊരു ഒത്തൊരുമ്മ മുന്നോട്ട് കൊണ്ട് പോകാനും പറ്റും